ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയമാണ് അതായത് എല്ലാവർക്കും അവസരം ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ നല്ലതാണ് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു ഇന്ത്യയിലെ ഇപ്പോൾ ഒരു

ഗുണമുള്ള കാര്യമാണെങ്കിലും ദോഷമുള്ള കാര്യമാണെങ്കിലും അതാണ് ചെയ്യുന്നത് ഗുണമുള്ള കാര്യങ്ങളാണ് ശെരിക്കും നമ്മള് സർക്കാരിൻ്റെ ഒപ്പം നിന്നിട്ട് നമ്മള് അതിനെ സപ്പോട്ട് ചെയ്യാണ് വേണ്ടത് പക്ഷെ അത് ചെയ്യുന്നില്ല അവര് എല്ലാവരും രാഷ്ട്രീയാണ് കാണുന്നത് അതില് നമുക്കെങ്ങനെ മുന്നേറാം എന്നാണ് അല്ലാതെ രാജ്യത്തിനു പുരോഗതി അവര് കാണുന്നില്ല ഒരു രാജ്യസഭയിലോ ലോകസഭയിലോ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ നമ്മള് ഒരിക്കലും അത് അനുകൂലിക്കുന്നില്ല പ്രതിപക്ഷ പാർട്ടികള് കാരണം അത് അവര് രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവര് ചെയ്യുന്ന പിന്നെ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നം എന്നു പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതായത് ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സംവരണ വിഭാഗം അവർക്കുള്ള വോട്ടിനെ വോട്ടിനത് വേണ്ടിട്ട് അവര് ചെയ്യുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളെയും അവര് സപ്പോർട്ട് ചെയ്യുന്നു അതായത് വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സപ്പോട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻ്റ് അത് ഒരിക്കലും ശരിയായ കാര്യമല്ല കാരണം നമ്മള് എല്ലാവർക്കും ഒരുപോലെ നമ്മള് കാണേണ്ടതാണ് ഇതിലിപ്പം ഒരു ജന വിഭാഗത്തിനെ അവർക്ക് ദോഷമുള്ളത് ചെയ്യാം മറ്റേ വോട്ട് ബാങ്ക് കൂടുതലുള്ള ജനതയ്ക്ക് നല്ലത് ചെയ്തു കൊടുക്കുക അവർക്ക് മാത്രം വികസനം കൊണ്ടുവരിക എന്നുള്ളത് തെറ്റായ കാര്യം തന്നെയാണ് അത് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റണതല്ല പിന്നെ ഇഷ്ടമുള്ള രാജ്യത്തിന് ജനാധിപത്യ രാജ്യത്ത് ഇഷ്ടമുള്ള കാര്യമെന്താണ് വെച്ചാൽ നമുക്ക് നമുക്ക് ജന പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പറ്റും അത് മാത്രാമാണ് അതും പിന്നെ അഞ്ചു വർഷം കൂടുമ്പോൾ നമുക്ക് ആ നേതാവിനെ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നതും എല്ലാം ജനാധിപത്യത്തില് വളരെ നല്ല കാര്യങ്ങള് തന്നെയാണ് ഏറ്റവും എനിക്കേറ്റവും ഇഷ്ടം തോന്നിയ നേതാവെന്നു പറഞ്ഞാൽ നരേന്ദ്ര മോദി തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും കറക്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഒരഴിമതി ആരോപണങ്ങളു പോലും അദ്ദേഹത്തിൻ്റെ ഇതില് ഉണ്ടായിട്ടില്ല ഇതുവരെ അത് മാത്രല്ല അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും അങ്ങനെല്ലാം അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയില് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉദ്ദേശം ആഗ്രഹം പിന്നെ അവരെ കാണാൻ അവസരം ലഭിച്ചാൽ ചോദിക്കാനുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നത് എന്ന് ആണ് ചോദിക്കാൻ ഉള്ളത് അദ്ദേഹം ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ലീഡർ ആണ് ഇന്ത്യൻ കാരണം ഇപ്പോൾ എല്ലാ ഭാഗത്തും ഡെവലപ്മെൻ്റ്സ് കൊണ്ടുവരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി ഇന്ത്യൻ സൈന്യത്തിലാണെങ്കിലും അതേപോലെ ഇപ്പോൾ ചന്ദ്രയാൻ ഐ എസ് ആർ ഒ ധൗത്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് നടന്നത് എല്ലാം ഒരു ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻ്റ് ആയാലും അതുതന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ പുതിയ നിയമങ്ങള് ഇപ്പോ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ ത്രീസെവെൻ്റി എടുത്തു കളഞ്ഞു അതുപോലെ ഇപ്പോ യൂണിഫോം സിവിൽ കോഡ് നിയമം അതായത് പിന്നെ അടുത്തത് ഒരു ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അങ്ങനെ നിയമം കൊണ്ടുവന്നാലും എല്ലാം ശെരിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് ഒരുപാട് ഇന്ത്യൻ പൗരത്വം എടുക്കാൻ ഒരുപാടുപേർക്ക് സഹായകരമായിട്ടുള്ള ബില്ലാണ് എല്ലാം സംഭവിച്ചത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളിൽ തന്നെയാണ് അങ്ങനെയൊക്കെ ജനാധിപത്യത്തില് നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി ഇന്ത്യ ഇപ്പോൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഈ ഗവൺമെൻ്റിൻ്റെ കീഴിലായാലും ഇന്ത്യ പലരീതിലും ഇപ്പോൾ ജി ട്വൻ്റി ഉച്ചകോടിവരെയും ഇന്ത്യയിൽ വെച്ച് നടക്കാൻ സാധിച്ചു അതെല്ലാം ആ ഒരു ഭരണകൂടത്തിൻ്റെ കഴിവുതന്നെയാണ് ഒരു രാജ ഭരണം എന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒരു ഈ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം അതൊക്കെയാണ് ഏറ്റവും മോശമായ കാര്യം ഒരു ഇന്ത്യൻ ജനാധിപത്യ രീതിയില് കാരണം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിട്ട് ഉപയോഗിക്കുക പല കാര്യങ്ങളും പല നല്ല തീരുമാനങ്ങളും അതുകാരണം മാറ്റി വെക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് കാർഷിക ബില്ലൊക്കെ അതിനൊരു ഉദാഹരണാണ് പിന്നെ പറയാനെന്താന്ന് വെച്ചാൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഒരു ഓപ്പോസിഷനും നല്ലൊരു പ്രതിപക്ഷവും വേണം നല്ലൊരു ഭരണ പക്ഷവും വേണം എന്നത് മാത്രമാണ് ഒരു ജനാധിപത്യ രീതിയില് തുടർന്നുകൊണ്ട് ഇന്ത്യയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഏറ്റവും നല്ല കാര്യം അതാണ് ചെയ്യാൻ സാധിക്കുക ഇനി ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ഇന്ത്യ എടുക്കാവുന്ന തീരുമാനങ്ങളും എല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്